ഞങ്ങൾ പിന്നെ അർത്തിങ്കൽ പള്ളിയിൽപ്പോയ വഴി ബീച്ചിൽ പോയി അപ്പം എൻ്റെ പിള്ളേരും ഉണ്ടായിരുന്നു അവർക്കൊരു വേറിട്ടൊരു അനുഭവമായിരുന്നു ബീച്ച് നല്ലൊരു അർത്തിങ്കൽ ബീച്ച് ഒത്തിരി ഒന്നിച്ച് പെരുന്നാളും കൂടെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ജനങ്ങളിവടെ കൂടുന്നൊരു സിറ്റുവേഷനാണ് പിന്നെ അപ്പോൾ ഒത്തിരി അതിനകത്ത് ഒരുപാട് കച്ചോടക്കാരും ഒക്കെ വന്ന് നമ്മൾക്ക് ആ തിരമാലകളും നമ്മൾ ആഞ്ഞടിക്കുമ്പോൾ നമ്മൾക്കെന്തോ ഒരു അനുഭവം നിറഞ്ഞ ഒരു സംതൃപ്തിയാണ് നമക്കുണ്ടാവുന്നത് പിന്നേ എൻ്റെ ചേച്ചിയുടെ പിള്ളേരുമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അർത്തുങ്കൽപ്പള്ളി കഴിഞ്ഞ് നേർച്ചയിട്ടിട്ട് അന്ന് പുണ്യാളച്ചനെ കണ്ടതിന് ശേഷം വന്ന് കടൽ വന്നു കണ്ടു കുറേ നേരം അവിടെയിരുന്നു നമ്മൾ സമയം ചിലവഴിച്ചതേ അറിഞ്ഞില്ല അതൊരു വല്ലാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു ആ ബീച്ച് അർത്തുങ്കൽ പള്ളിയിൽപ്പോയി ബീച്ച് കണ്ടത് പിന്നല്ലാതെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി വണ്ടാനത്ത് അവിടേയും ബീച്ചിൽ പോയി അവിടുത്തത് നല്ലിതായിരുന്നു അത് ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൻ്റെ അടുത്താണ് തിരമാലകൾ ആഞ്ഞടിക്കുമ്പോഴേക്കും അത് കാണാനായിട്ട് പ്രത്യേക രസമായിരുന്നു അപ്പം അതിനിടെ പിള്ളാർ വന്ന് കടലമ്മ കള്ളിയെന്നൊക്കെ പറയുമ്പം അത് തിരയടിച്ച് പോവുന്നതും ഒക്കെയൊരു കാണാൻ ഭംഗിയേറിയ കാഴ്ച്ച തന്നെയാണ് കൗതുകമാണത് കാണാനായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും തിരമാലകളുടെ വരവ് കണ്ടാലും കണ്ടാലും നമ്മൾക്ക് മതിയാവത്തില്ല അത്രയ്ക്ക് ഇമ്പമാണ് തിരമാലകൾ അടിച്ച് വരുന്നത്